തീർച്ചയായും വൈദ്യുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപകടം പിടിച്ച ഒരു സാധനം തന്നെയാണ് അതിപ്പോൾ നമ്മൾ നനഞ്ഞ ഡ്രസ്സ് നമ്മൾ വൈദ്യുതി കമ്പിയിൽ പോയി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളടക്കം ഷോക്കടിച്ചു കിടക്കും പിന്നേ കമ്പിയെങ്ങാനും വൈദ്യുതി കമ്പി നിലത്തു പൊട്ടി വെള്ളത്തിലോട്ട് വീണിട്ടുണ്ടെങ്കിൽ നമുക്കും ഷോക്കടിക്കും അതേ പോലെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നനഞ്ഞ സാധനങ്ങൾ ഒന്നും വൈദ്യുതിയിൽ വൈദ്യുതി ആയിട്ട് ബന്ധപ്പെട്ട കയറിൽ പോലും നമ്മൾ ഇടരുത് നമ്മൾ സാധാരണ മാറ്റി ഇടുകാ പിന്നേ ടി വി ഒക്കേ കണ്ട് കഴിഞ്ഞിട്ട് ഇടി വെട്ടുന്ന സമയത്തൊക്കെ പ്ലഗ് ഊരി ഇടുക മിക്സിയുടെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഊരി ഓഫ് ആക്കി വെക്കുകാ അതേ പോലെ തന്നേ ഏറ്റവും കൂടുതൽ വരുന്നത് നമുക്ക് ഷോക്കടിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അയൺ ബോക്സ് ആണ് അയൺ ബോക്സ് എങ്ങനേ എടുത്താലും നമ്മൾ ഷോക്കടിക്കും അപ്പോൾ വയർ ഒക്കേ ഇങ്ങനേ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വഴി ഷോക്കടിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അങ്ങനെ ഒക്കെ ഉള്ളതൊക്കെ ഒഴിവാക്കി സൂക്ഷിച്ച് അങ്ങനെ ഉള്ള വയർ ഒക്കെ മാറ്റി നല്ല വയർ ഒക്കെ ഇട്ട് ആവശ്യം കഴിഞ്ഞ് ഉപയോഗിച്ചത് ഭദ്രമായിട്ട് മാറ്റി വയ്ക്കാൻ നോക്കണം പിന്നേ അമിതമായിട്ട് വൈദ്യുതി ചിലവാക്കാതിരിക്കാൻ നോക്കുക അപകടം പിടിച്ചൊരു സാ ഒരു കാര്യം ആണ് വൈദ്യുതി പക്ഷേ അതിൽ ഉപകാരവും ഉണ്ട് എന്നുള്ളത് വേറെ കാര്യം പക്ഷേ അതെങ്ങനേ ആ അപകടം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് നമ്മൾ നമ്മൾ തന്നേ മുൻകൈ എടുത്ത് ചിന്തിച്ച് നമ്മൾ തന്നേ പ്രാവർത്തികം ആക്കേണ്ട കാര്യം ആണ്